ഹലോ ഇത് ട്രാവൽ ഏജൻസി അല്ലേ ചേട്ടാ ഒരു ക്യാബിന് ബുക്ക് ചെയ്തിട്ട് രാവിലെ എത്താമെന്ന് പറഞ്ഞതാണ് ഡ്രൈവറൊന്നും എത്തിയിട്ടില്ല വിളിച്ചിട്ടാണേൽ കോളെടുക്കുന്നുമില്ലാ ഇപ്പെന്താണ് ചെയ്യേണ്ടത് നമ്മൾ കുടുംബമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടീട്ടായിരുന്നു ക്യാബ് ഓഡറ് ചെയ്തത് ഇതിപ്പം വിളിച്ചിട്ട് എടുക്കുന്നുമില്ല നമുക്ക് നമ്മുടെ സമയത്തിന് പോകണ്ടേ നമുക്കവിടെ എത്താനുള്ളതല്ലേ എത്തീട്ട് നമുക്ക് തിരിച്ച് വരുവോം വേണ്ടതാണ് ഇതിപ്പം എന്താ ചെയ്യേണ്ടത് ഡ്രൈവറാണെ കോളെടുക്കുന്നുമില്ല അപ്പം നിങ്ങളെ അല്ലാതെ നമുക്ക് വേറെ ആരെയും ബന്ധപ്പെടാൻ പറ്റത്തില്ലല്ലോ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഒന്ന് വേഗം ചെയ്യ് കേട്ടോ ഇത് എത്ര നേരമായെന്നറിയോ ഇവിടെ കാത്തിരിക്കുന്നത് വിളിച്ചിട്ടാണെങ്കിൽ കോളെടുക്കുന്നേ ഇല്ല എത്ര നേരാച്ച വിളിക്കുക ടൈംമ് പോയി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ നമ്മളെ ഈ ഒരു പ്ലാനിങ്ങിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് രാത്രി വൈകുന്നതിനു മുന്നേ തന്നെ വീട്ടിലേയ്ക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിലുള്ള ഒരു വിശ്വാസത്തിലല്ലേ നിങ്ങളെ ട്രാവലേജൻസിയിൽ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തത് അല്ലാതെ വേറെ ഏജൻസിയൊന്നും ഇല്ലാത്ത കൊണ്ടല്ലല്ലോ ഇത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വേഗം ചെയ്യ് പെട്ടന്നുതന്നെ